ഇപ്പോൾ നമ്മുടെ ജോലിയുടെ ഒരു കരിയറിൻ്റെ ഭാവി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്കെപ്പോഴും ഒരു ഗുണമുള്ള രീതിയിലായിരിക്കണം എന്നാണ് നമ്മള് എന്തുകൊണ്ടും ആഗ്രഹിക്കുക ഇപ്പോൾ സാധാരണ പറയുകയാണെങ്കില് ഇപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റും കാര്യങ്ങളും കിട്ടിയാലേ നമ്മളതില് എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആയിരിക്കുകയുള്ളു അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കേ ഒ കിട്ടുവാണെങ്കിൽ നമ്മളാ ജോലിയിൽ എപ്പോഴും ക ഇതായിരിക്കും തൃപ്തരായിരിക്കും അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം കാര്യങ്ങളെന്നൊക്കെയാണ് എൻ്റെ ഒരാ ആഗ്രഹം അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മള് ചെയ്യുന്ന ജോലിയില് നമുക്ക് നല്ല സാലറിയും കാര്യങ്ങളും പൊസിഷനും എല്ലാം നല്ല ബെറ്ററായിട്ട് ലഭിക്കുകയാണെങ്കിൽ നമുക്കാ ജോലി ചെയ്യാൻ ഒരു മടുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമുക്കോവറ് പ്രഷറും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിലൊക്കേ ആണെങ്കില് നമ്മള് നല്ല രീതിക്ക് തന്നേ ജോലി ചെയ്യും അതിനനുസരിച്ച് സാലറിയും കാര്യങ്ങളും നമുക്ക് കിട്ടുമെങ്കിൽ നമ്മള് ഹാപ്പി ആയിരിക്കും അപ്പോൾ അതുപോലൊരു ഇതായിരിക്കണം എന്നാണ് എൻ്റെയും ഒരാഗ്രഹം അത്യാവശ്യം നല്ല ഒര് പൊസിഷനില് അത്യാവശ്യം നല്ല സ്ട്രഗിളും കാര്യങ്ങൾ ഒന്നും ചെയ്യാണ്ട് തന്നേ നമ്മള് എത്തിപ്പെടുവാണെങ്കിൽ അത് ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതേപോലോരു ജോലിയാണ് എൻ്റേയും ഒരു കരിയറിലേക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്